കേരളത്തിൽ കുറേ പ്രശസ്തമായിട്ടുള്ള അമ്യുസ്മെൻ്റ് പാർക്കുകളും വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട് അതിലൊരു നല്ലൊരു എക്സാമ്പിളാണ് വണ്ടർലാ അവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള തീം പാർക്കുകളും നമ്മുടെ വളരെ അധികം ഉപയോഗം തരുന്ന റൈഡുകളും ഉണ്ട് പിന്നെ അടുത്തൊരു ഇതാണ് സൂകൾ തൃശ്ശൂർ തിരുവനന്തപുരം എന്നി രണ്ട് സൂകളാണ് കേരളത്തിൽ ഏറ്റവും മികച്ചിട്ടുള്ളത് അതിൽ നമുക്ക് പല തരത്തിലുള്ള മൃഗങ്ങളെ കാണാം

ഞങ്ങൾക്ക് വേറെയെന്നുള്ളത് കൊച്ചിയിലുള്ള നമ്മുടെ പഴയ സ്ഥലങ്ങളാണ് നമ്മുടെ പണ്ടത്തെ പോർച്ചുഗീസ് ഭരണകാലത്തൊക്കെ ഉണ്ടായിരുന്നിട്ടുള്ള പല തരത്തിലുള്ള ബിൽഡ്ഡിങ്ങുകൾ നമുക്ക് ആ ഒരു സ്ഥലത്ത് കാണാം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ നമുക്ക് പഴയ തരത്തിലുള്ള ബിൽഡ്ഡിങ്ങുകളൊക്കെയാണ് അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്